മണ്ണിനെ അറിയുക എന്നുള്ളതാണ് പുതിയ തലമുറയോട് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് മണ്ണിനെ അറിയാന് കഴിഞ്ഞാല് കൂടെയുള്ള മനുഷ്യനെ അറിയാനായിട്ട് കഴിയും അപ്പോള് നമുക്ക് നല്ല മനുഷ്യനായിട്ട് മാറാനായിട്ട് പറ്റും അല്ലേ കൃഷി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് വീട്ടില് കുട്ടികളും ഒരിമിച്ച് കൃഷി ചെയ്യുന്നൊരു സമ്പ്രദായമള്ളൊരു കുടുംബം ആണ് ഞങ്ങളുടേത് കാരണം കുട്ടികള് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ പുതിയ തലമുറ കഴിക്കുന്ന ഭക്ഷണം നമ്മള് ഊണു മേശയിലിരുന്ന് നമുക്ക് കിട്ടുന്ന സകലതും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് അറിയേണ്ടീരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മണ്ണിലൊരു വിത്തിട്ട് അത് മുളച്ച് വളര്ന്ന് അതിലൊരു കായ് ഉണ്ടാകുന്ന സന്തോഷം കുട്ടികള് കണ്ട് തൊട്ട് അനുഭവിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ചെടിയെങ്കിലും നടണം അതായത് ഒരു വൃക്ഷം തൈ നടണം എന്നല്ല ഞാന് പറയുന്നത് ഒരു വൃക്ഷം തൈ നടണം അതിന്റെ വളര്ച്ച കാണാനായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോള് ഒരു തൈ നടണം എന്നുള്ളതാണ് അതിന്റൊപ്പം തന്നെ എല്ലാ കാലത്തും അതാത് കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ ഒരു തൈ ഒരു പച്ചക്കറി തൈ നടുക എന്നുള്ളതാണ് കു പുതിയ തലമുറയോട് പറയാനായിട്ടുള്ളത് അവര്ക്കതിനധികം സമയമൊന്നും വേണ്ട ഒരുപാട് സ്ഥലവും ആവശ്യമില്ല ഒരു ഗ്രോ ബാഗിൻറ്റകത്തോ ഒരു പോട്ടിന്റകത്തൊ നട്ടുനനച്ച് വളര്ത്താവുന്നതേയുള്ളു അപ്പോൾ ഒരു ചെടിയെങ്കിലും നട്ട് അതിന്റെ ഒരു സന്തോഷം അനുഭവിക്കണം എന്നുള്ളതാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്